പാവകളൊക്കെ ഉണ്ടാക്കാറുണ്ട് എഴുത്ത് കടലാസ് വെച്ച് ബോട്ട് ഉണ്ടാക്കി ഒരുപാട് കളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ബോട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് പഴയകാലങ്ങൾ ഓർമിക്കുമ്പോൾ അതൊക്കെ നമ്മളെ ഇതിലെത്താറുണ്ട് പിന്നെ വെ വിദ്യാർഥിയായിരുന്ന സമയത്ത് കരകൗശലം നമ്മളെ പഠിപ്പിച്ചിരുന്ന സാറുമാരുണ്ട് പിന്നെ കലയെ എന്നു പറഞ്ഞ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മള് സ്കൂളിൽനിന്ന് പഠിച്ചിട്ടുണ്ട് മഴയത്ത് കൂടുതലും കടലാസ് ബൂക്കിൽനിന്ന് വലിച്ചുകീറി ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുകി ഒഴുക്കി വിടാറുണ്ട് അതൊക്കെ ഇപ്പോഴും ചെയ്യാൻ ഇഷ്ടവാണ് പക്ഷെ ആ ഓർമ്മകള് വരുമ്പം അറിയാതെ അത് ഉണ്ടാക്കിപോകാറും ഉണ്ട്